നമ്മളൊരു ജോലി സമയം സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമ്മർദ്ദങ്ങളും അതുപോലെയുള്ള പ്രഷറുകളും കാര്യങ്ങളുമെല്ലാം അനുഭവിക്കേണ്ടതായിട്ടു വരും കാരണം എന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ പഠന കാലത്തിൽ കടന്നു പോകുന്നതു പോലെയല്ലല്ലോ നമ്മളൊരു യൗവ്വനത്തിലേക്കെത്തി നമ്മളുടെ ഫാമിലിയെ നോക്കിക്കാണേണ്ട അവസ്ഥയൊക്കെ വരുമ്പം അതിന്റേതായ പ്രഷറുണ്ടാകും അതുപോലെ ജോലി സ്ഥലത്തു ചെയ്യേണ്ട വർക്കുകളുടെ ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അപ്പോൾ അതിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ജീവിതത്തിൽ വിജയിക്കും അല്ലെങ്കിൽ ഫാമിലി ഫാമിലിയെയും വർക്കിനെയും രണ്ടിനെയും ഒരുമിച്ചു കൊണ്ടുപോകാൻ പറ്റണം അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഞാനെങ്ങനെയാണു ചെയ്യുക എന്നു വെച്ചു കഴിഞ്ഞാൽ എനിക്ക് വീക്കെൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ ലീവ് ആണ് അപ്പം സാറ്റർഡേയും സൺഡേയും ഞാൻ പരമാവധി എൻ്റെ ഫാമിലിക്കു വേണ്ടി ചിലവഴിക്കും ഫോർട്ടി ഏയ്റ്റ് അവേഴ്സും അവർക്കു വേണ്ടി മാത്രം ചിലവഴിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കും പിന്നെ നമ്മൾ ഒരു വീക്കിലേയ്ക്കു പോകുന്ന സമയത്ത് നാം വർക്ക് വർക്കിൽ നമ്മൾ ഹണ്ട്രഡ് പെർസന്റ്റേജ് കൊടുക്കും അതു കഴിഞ്ഞ് വർക്കിനെ ഒന്നു നല്ല രീതിയിൽ കൊണ്ടു വന്നതിനു ശേഷം വീട്ടിലെത്തുന്നു വീട്ടിലെത്തുന്ന സമയത്ത് വർക്കിൻ്റെ ഒരു ചിന്തയും ഇല്ലാതിരിക്കുക എന്നിട്ട് ഫ് ഫാമിലിക്കു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക അല്ലാതെ ഫാമിലിയ്ക്ക് സ്പെൻഡ് ചെയ്യേണ്ട ടൈമിൻ്റെ സമയത്ത് വർക്കിനെ കുറിച്ചു ആലോചിച്ച് വർക്കിൻ്റെ സമയത്ത് ഫാമിലിയെ കുറിച്ചു ആലോചിച്ച് ഒരു ക്ലാഷ് വരുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഏതിലാണോ ഇരിക്കുന്നത് അതിൽ ഹണ്ട്രഡ് പെർസന്റ്റേജ് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് എല്ലാം ഹാൻഡിൽ ചെയ്തു കൊണ്ടു പോകാൻ പറ്റും ഇപ്പം ഫാമിലിയെ നോക്കണം എന്നു വെച്ചു കൊണ്ട് നമുക്ക് വർക്ക് ഉപേക്ഷിയ്ക്കാൻ കഴിയില്ല വർക്കിനു വേണ്ടി നമുക്ക് ഫാമിലിയെയും ഉപേക്ഷിയ്ക്കാൻ കഴിയില്ല രണ്ടും നമ്മൾ ബാലൻസ്ഡ് ആയിട്ടു കൊണ്ടു പോകുന്നത് കൊണ്ടു പോകേണ്ടതും പ്രധാനമായ കാര്യം തന്നെയാണ്